തീർച്ചയായും എഴുത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും നമുക്ക് പല പല ലക്ഷ്യങ്ങളിലേക്ക് നമുക്കെത്താൻ പറ്റും കാരണം എനിക്ക് എഴുതാൻ ഒട്ടേറെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പല കവിതകളും കഥകളും വായിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വിഷമം എന്താണ് വാക്കുകളിലുണ്ടാകുന്ന മൂർച്ചയേറിയ ഓരോ പ്രയോഗങ്ങളും അവർക്ക് അവരുടെ മനസ്സിലെങ്ങനെയാണ് തട്ടിയെഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാള് നല്ലൊരു എഴുത്തുകാരനാണെങ്കിൽ അയാൾക്ക് എന്ത് വിഷമവും സങ്കടവും സന്തോഷവുമാകട്ടെ എന്തുമാകട്ടെ അതയാള്ക്ക് പറയാനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എഴുത്തുകളിലൂടെ ഈസിയായിട്ട് പറ്റും എനിക്കൊക്കെ എഴുതാന് ഭയങ്കരം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഇപ്പോള് എന്താണ് പറയുക നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഹാൻഡ്റൈറ്റിങ്ങിലാണ് നമ്മുടെയൊരു വൃത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മിസ്മാരൊക്കെ പറഞ്ഞുകേട്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടമുള്ള കാര്യം എഴുതാൻ തന്നെയാണ് കൂടുതലും വായിച്ചിരിക്കുന്നതിലും കുറച്ചുകൂടി നല്ലത് കേട്ടിരിക്കുന്നതിലും കുറച്ചുകൂടി നല്ലത് എഴുതാനാണ് നമ്മളെഴുതുമ്പോള് നമ്മുടെ ചിന്ത ഉണരുമെന്നാണ് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും എഴുത്തിലൂടെ നമുക്ക് എക്സ്പ്രസ്സ് ചെയ്യാൻ പറ്റും നമ്മള് മറ്റൊരാളോട് ഇപ്പോള് പണ്ട് കാലങ്ങളിലൊക്കെയാണെങ്കില് ഫുൾ മറ്റേ കത്തെഴുതലൊക്കെയായിരുന്നു അപ്പം അവർക്ക് അതറിയാൻ പറ്റും ഇപ്പോഴെന്ന് വെച്ചാല് പല സാങ്കേതികവിദ്യകള് വന്നതോടുകൂടി മൊബൈൽ ഫോൺ വന്നതോടുകൂടി നമുക്കിപ്പോള് ആൾക്കാരെ വീഡിയോ കോള് ചെയ്യാം വിളിക്കാം അങ്ങനെയൊക്കെ മുന്നെയൊക്കെയെന്നുവെച്ചാല് എഴുത്തിലൂടെയാണ് ഫുൾ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് അപ്പോള് തൊട്ടപ്പുറത്തെ ജില്ലയില് നിന്ന് ഒരു എഴുത്തെഴുതി കഴിഞ്ഞാല് വരുന്നത് പത്തും ഇരുപതും ദിവസം കഴിഞ്ഞിട്ടാണ് അത്രയും നമ്മള് കാത്തിരിക്കും അവരുടെ വരികൾക്കായിട്ട് പക്ഷെ ഈ കാലത്തിലെന്ന് വെച്ചുകഴിഞ്ഞാല് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ ആ ഒരു യുഗത്തിലേക്ക് വന്നു ടെക്നോളജി വളർന്നുകഴിഞ്ഞപ്പോള് നമുക്ക് അതിൻ്റേതായ രീതിക്ക് വന്നു ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ എഴുത്തുകാരെയൊക്കെ ഭയങ്കരം ഇഷ്ടമാണ് അവരുടെ ചില വരികളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തട്ടിനില്ക്കും സുഗതകുമാരിയാവട്ടെ അതുപോലെ തന്നെ ഒട്ടനവധി കെ ആർ മീരയാകട്ടെ കെ ആർ മീരയുടെ ആരാചാരൊക്കെ എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് നമുക്ക് ആ ഉള്ളില് തട്ടി വായിക്കുന്ന നോവലുകളാണ് അതൊക്കെ എനിക്ക് കൂടുതലും ബുക്സ് വായിക്കും നല്ല ബുക്കുകള് വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈയിടയ്ക്കിറങ്ങിയ ഒരുപാട് കഥകള് ഞാൻ വായിച്ചു അതിലെനിക്ക് മനസ്സില് തട്ടിയത് അതെല്ലാം എനിക്കൊരു പ്രത്യേക ഒരു ഫീല് തന്ന ഒരിതായിരുന്നു അതുപോലെ തന്നെ പല നോവലുകളും എനിക്കൊരുപാട് ഇഷ്ടമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം അതെല്ലാം എൻ്റെ മനസ്സില് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നൊരു കാര്യമാണ് ഒരു എഴുത്തുകാരനെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് എൻ്റെ ഒരാഗ്രഹമെന്ന് പറഞ്ഞാല് എനിക്കൊരു എഴുത്തുകാരിയാകണമെന്നാണ് എനിക്കത്രയ്ക്കും ഇഷ്ടമാണ് വരികളെന്ന് വെച്ചാല് എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഒന്നാണെന്നുതന്നെ പറയാം എൻ്റെ അച്ഛൻ ഇവിടെയൊരു കവിതയൊക്കെ ചൊല്ലും അപ്പോള് പുള്ളിയുടെ വരികളൊക്കെ എനിക്ക് ഭയങ്കരം ഇഷ്ടമാണ് അപ്പോള് ഇങ്ങനെ ഞാൻ കേട്ടിരിക്കും അതുപോലെ തന്നെ ഞാനും ഇവിടെ കുറച്ച് പോയംസും കാര്യങ്ങളുമൊക്കെ എഴുതാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എനിക്ക് വീട്ടില് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനത് എഴുത്തിലൂടെയാണ് ഞാന് അവിടെ പ്രകടിപ്പിക്കുന്നത് അതെനിക്ക് അതിവിടെ പലര്ക്കും മനസ്സിലാകുകയും ചെയ്യാറുണ്ട് അവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നതെന്നുള്ളത് നമുക്കിപ്പോള് ചിലപ്പോള് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിലത് എഴുത്തിലൂടെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും അതുപോലെ എഴുത്തിലൂടെ വളരെയേറെ കുറേ നേട്ടങ്ങള് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അത് നമ്മുടെ ഉള്ളില്നിന്ന് വരുന്നൊരു വികാരമായിരിക്കും അതുകൊണ്ടുതന്നെ എനിക്ക് എഴുതാനും വായിക്കാനായാലും എഴുതാനായാലും എനിക്കത്രയും ഇഷ്ടമാണ്